ഹലോ അതെ അല്ലോ ആ ഹാ ആ ആ ഹാ നോക്കാം എവിടെയായിട്ടാണ് ഇരിക്കുന്നത് ആ ഹ കാൻറ്റീനിൽ ഏത് ഭാഗത്തായിട്ടാണെന്ന് അറിയോ റൈറ്റ് സൈഡ് ആ ഞാൻ നോക്കാവെ കോള് കട്ട് ചെയ്യല്ലേ ആ ആ ഞാൻ ഇവിടെ വന്നു ഏത് കളറാണ് ബാഗ് ബ്ലാക്ക് ആണല്ലേ അവിടെത്തന്നെ അല്ലേ വച്ചത് നോക്കുന്നുണ്ട് പക്ഷേ കാണുന്നില്ല ആ ഹ ഇനി ഇവിടെ നിന്ന് വേറെ ആരെങ്കിലും എങ്ങോട്ടെങ്കിലും എടുത്തു മാറ്റിയോ എന്നും അറിയത്തില്ല ഞാൻ നോക്കാം ഇവിടെ തന്നെയാണ് വച്ചതെന്ന് ഉറപ്പല്ലേ വേറെ എങ്ങോട്ടും പോയില്ലല്ലോ ആ ഹാ ആ ബാഗിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഐറ്റംസ് വല്ലതും ഉണ്ടോ പൈസയോ അങ്ങനെ എന്തെങ്കിലും ആ ഹ പൈസ എത്ര രൂപ കാണും ആണല്ലേ മൂവ്വായിരം രൂപ അത്രയും കാണുമോ അതോ മുന്നൂറ് നാനൂറ് അങ്ങനെയാണോ ആ അത്രയും കാണുമല്ലേ ഞാൻ നോക്കാം ആ ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് പക്ഷേ കിട്ടിയെങ്കിൽ കാണുകയാണെങ്കിൽ ഞാൻ എടുത്തു വച്ചേക്കാം ആ ഹ മൂന്നര മിനിറ്റ് ഇപ്പോഴും നോക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ എന്തോ വേറെ എന്തൊക്കെ ഐറ്റംസൊക്കെ എടുത്ത് മാറ്റിയും തിരിച്ചും ഒക്കെ വച്ചേക്കുവാണ് അപ്പോൾ ഈ കൊച്ച് പറഞ്ഞ സ്ഥലത്ത് ആ ഹ ഹ വേറെ പുറത്തേക്കൊന്നും പോയില്ല അല്ലേ ഇവിടെത്തന്നെയാണ് അല്ലേ ഇനി

ആ ഹ ആ ഞാൻ നോക്കാം ഇനി ആ അഥവാ ആരെങ്കിലും പുറത്തേക്ക് എടുത്തു കൊണ്ട് പോയോ ആണല്ലേ ആ ആ അപ്പം ഞാൻ ഒന്നും കൂടി ശരിക്ക് നോക്കാം ആ ഹ ആ നിങ്ങളുടെ ബെഗ് ആ കറുത്ത ബാഗ് അല്ലേ ആ അത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് എൻ്റെ കൈയിൽ തന്നെ വച്ചാൽ മതിയോ നാളെ വരുമ്പോൾ തന്നാൽ മതിയോ ആ ഞാൻ ആ ഞാൻ നോക്കാം ഒരു പേഴ്സ് ഉണ്ട് പിന്നെ പറഞ്ഞത് പേഴ്സിൻ്റെ അകത്ത് മുന്നൂറ് നാനൂറ് രൂപ അല്ലേ പിന്നെ കുറച്ചു ചില്ലറ തുട്ടും ആ അത്രയും ഉണ്ട്

ആ ഹാ ഹ ആ ഓക്കെ ഓക്കെ ആ അതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ ഈ രണ്ടു സാധനം അല്ലേ ഉള്ളൂ ഒ ആ ആ ഹാ ഓക്കെ ആ എൻ്റെ എന്നെ വിളിച്ചാൽ മതി വന്നു കഴിയുമ്പം ആ ആ എന്നാൽ ഓക്കെ ഓക്കെ ആ